തീർച്ചയായും വൈദ്യുതി മുടങ്ങുമ്പോള് ഞങ്ങള് നമ്മളെ അത് തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട് കാരണം നമ്മുക്ക് ഇപ്പഴത്തെ കാലാവസ്ഥയിൽ നമ്മള് ഫാനെപ്പഴും ഉപയോഗിക്കുന്നവരാണ് അപ്പോള് പെട്ടെന്ന് ഈ ചൂടിനെ താങ്ങാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ നമ്മുടെ നിത്യോ നമ്മളെപ്പോഴും കറണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ കാരണം മോട്ടോര് വെള്ളം

പിന്നെ അപ്പ് അപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ നമ്മള് കൂടുതലും വിളക്കുകള് പിന്നെ തിര് മെഴുകുതിരികളുപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട് അതൊക്കെയാണ് നമ്മളുപയോഗിക്കുന്ന മാർഗ്ഗങ്ങള് പക്ഷേ എന്നാലും നമ്മള് വൈദ്യുതി നമുക്ക് വൈ കറണ്ട് പോലെ നമുക്കൊരിക്കലും നമുക്ക് കറണ്ട് പോലുള്ള ഉപയോഗം മറ്റേതുകൊണ്ട് നമുക്കൊരിക്കലും സാധ്യമല്ലല്ലോ ഇത് നമ്മളെ നമ്മുടെ ഉപജീവനമാണ് നമ്മുടെ ഡെയിലി നമ്മുടെ ദിവസ ഒരു ദിവസത്തെ നമുക്ക് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ നമുക്ക് ബാധിക്കാറുണ്ട് അപ്പോഴും നമ്മളെ കറണ്ടും പെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് ഒന്നുകിൽ അടുത്ത വീടുകളിൽ ചോദിക്കും നിങ്ങൾക്ക് കറണ്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് അത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വൈദ്യുതി കെ എസ് ഇ ബിയിലോട്ട് സാധാരണ വിളിച്ചു ചോദിക്കാറാണ് ഇതെന്നാ പറ്റി കറണ്ടില്ലാത്ത എന്തെങ്കിലും പണികള് നടക്കുകയാണോ ഇതിനി എപ്പോള് വരും കാരണം ഞങ്ങൾക്കിത് കൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് കാരണം ഓഫീസുകളിലാണെന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറുകള് ഉപയോഗിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങൾക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് നമുക്ക് നേരിടണം വീടുകളിലാണെന്നു പറഞ്ഞുകഴിഞ്ഞാലും നമ്മുടെ ബുദ്ധിമുട്ടുള്ളെണ് കാരണം നമുക്ക് പല രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അല്ലെങ്കില് നമ്മള്ക്ക് നമ്മള് ഫോൺ ചാർജെയ്യാൻ പറ്റത്തില്ല നമുക്ക് ടി വി കാണാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കത് സ്ഥാപനങ്ങളിലാണേലും സ്കൂളുകളിലൊക്കെയാണെന്നു പറഞ്ഞാലും പൊതുവെ കമ്പ്യൂട്ടര് അതുപോലെ തന്നെ ഒപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുപയോഗിച്ച് സ്ഥാപനങ്ങളിലാണേലും അങ്ങനെതന്നെ എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം ഒരു പരിപാടിയിലാണെന്നു നമുക്ക് പെട്ടെന്നിത് പോയി കഴിയുമ്പോള് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യമേ വഴികള് പിന്നെ ഇൻവേർട്ടറുകളില്ലാത്ത വീടുകളാണ് കൂടുതലും കാരണം അത് ചില ചില വീടുകളിലെ ഉള്ളു സാധാരണ സാധാരണ ആൾക്കാരുടെ വീടുകളില് ഇതൊന്നും കാണാറില്ല കാരണം അവർക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ കറണ്ട് പോയിക്കഴിയുമ്പോള് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം ഇൻവേർട്ടറൊന്നുമില്ല ഇൻവേർട്ടറുള്ളവർക്കത്ര ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷെ അതല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്